ജലദോഷം ഭേദമാകാനായിട്ട് പനിക്കൂർക്കയുടെ ഇല ഒന്നു ചെറുതായി വാട്ടിയതിനുശേഷം ഇരുമ്പ് ചട്ടിയില് വാട്ടിയതിനുശേഷം നെറുകയിൽ വച്ചാൽ മതി അതു കൂടാതെ ചുവന്നുള്ളി പൊളിച്ച് അതു ശ്വസിച്ചാലും ജലദോഷത്തിനു മാറ്റം കിട്ടും പിന്നെ ചുക്കുകാപ്പി കുടിക്കുകയോ തുളസിയില വെറുതെ കഴുകി വൃത്തിയാക്കിയതിനുശേഷം കടിച്ചു തിന്നുകയോ ചെയ്താലും ജലദോഷത്തിനു ശമനം കിട്ടും അതുപോലെ തന്നെ വായു ആവി സോറി ആവി പിടിച്ചാലും ജലദോഷം കുറയാനുള്ള സാധ്യതയുണ്ട്